ജലദോഷം ഒര് രോഗമായിട്ട് ആരും തന്നെ പരിഗണിക്കാറില്ല ജലദോഷം ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ് ഒര് അസുഖമാണ് വെള്ളം മാറിയാലും അത് നമ്മുടെ വീട്ടില് തന്നെ നിൽക്കുമ്പഴും നമുക്ക് ചില സമയങ്ങളിൽ ജലദോഷം വരാറുണ്ട് ജലദോഷം വന്ന്കഴിഞ്ഞാലാരും വല്ലാതെ അത് വല്ല ഗൗരവത്തിലെടുക്കറൊന്നുമില്ല ആശുപത്രിയിൽ പോകാറൊന്നുമില്ല വേഗം നാടില് നാട്ടില് നമുക്ക് അറിയാവുന്ന പൊടിക്കൈകളും എന്തേലുമൊക്കെ ചേര്ത്ത് ആ ജലദോഷം മാറ്റാനാണ് ശ്രമിക്കാറ് കൂടുതലായിട്ടും നമ്മള് തുളസി ഇല ചുക്ക് കുരുമുളക് ശര്ക്കര കാപ്പിപ്പൊടി അതൊക്കെ ഇട്ടിട്ട് ചുക്ക്കാപ്പിയുണ്ടാക്കിയിട്ട് നന്നായിട്ട് കുടിക്കും അത്പോലെ നമ്മള് കല്ലുപ്പിട്ടിട്ട് വെള്ളത്തില് കല്ലുപ്പിട്ടിട്ട് രണ്ട് മൂന്ന് തവണ ആയിട്ട് ആവിപിടിക്കും അങ്ങനെ ആവിയൊക്കെ പിടിക്കുമ്പം ആ മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ആ തലയിലെ ചെളിയും ഇതൊക്കെ അങ്ങോട്ടൊഴിഞ്ഞ് പോകുമ്പം തന്നെ നമുക്ക് ഒരാക്കം കിട്ടും പിന്നെ ജലദോഷം സാധാരണ വന്ന് കഴിഞ്ഞാലൊര് നാലഞ്ചു ദിവസമൊക്കെ ഇങ്ങനെ നീണ്ട് നിൽക്കും അത്കഴിഞ്ഞ് പിന്നെ ജലദോഷം അങ്ങട് മാറും ചെയ്യും പക്ഷെ ജലദോഷം വന്ന്കഴിഞ്ഞാല് പല ദോഷമാണ് കണ്ണ് വേദന ചെവിവേദന തൊണ്ടവേദന മൂക്ക് വേദന ഭക്ഷണത്തിന് രുചിയില്ലായ്മ അങ്ങനെ അസ്വസ്ഥകൾ തന്നെയാകും കൂടുതലും ജലദോഷം വന്ന് കഴിഞ്ഞാൽ പക്ഷേ ഈ നാട്ടില് നമ്മുടെ നാട്ടില് പ്രചാരത്തിലുള്ള ഈയൊര് ചുക്ക്കാപ്പി കുടിച്ച് കഴിഞ്ഞാല് ജലദോഷമൊക്കെ പമ്പ കടക്കും ഏതാണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് പിന്നെ കുരുമുളകിൽ ഒക്കെ വെളക്കത്ത് കാട്ടി ചൂടാക്കിയിട്ടൊക്കെ സ്മെൽ ചെയ്ത് മണപ്പിക്കുക മണത്ത് നോക്കുക അത്പോലെ കല്ലുപ്പിട്ടിട്ട വെള്ളം തിളപ്പിച്ചിട്ട് മൂക്കടപ്പൊക്കെ വരുമ്പം മൂക്കിലിറ്റിക്കുക പിന്നെ വല്ല വിക്സ്സ് ടൈഗര് ബാമ് അങ്ങനത്തേതൊക്കെ നെറ്റിയിൽ പുരട്ടിയിട്ടും ആവിപിടിച്ചിട്ടും ചുക്ക്കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ടും അങ്ങനെ നമ്മുടെ ജലദോഷം പമ്പ കടക്കും